ഹലോ ആ എന്താണ്

ആ തേങ്ങാ പിന്നെ പൊളിച്ച് തേങ്ങ ഉണക്കിയിട്ടൊന്നും ഉണ്ടാവില്ലല്ലേ വെട്ടിയിട്ടൊന്നും ഉണ്ടാവില്ലല്ലേ പൊളിച്ച തേങ്ങ ആ ആ എങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ചെയ്യും ഇപ്പോൾ തേങ്ങ അങ്ങനെ പൊളിച്ച തേങ്ങ അതേപോലെ കൊണ്ടുവന്ന് തന്നാൽ നമ്മൾ ഇവിടെ മില്ലിൽ ഇട്ട് വെട്ടി ചേവിലിട്ട് ഉണ്ടാക്കിയിട്ട് വെളിച്ചെണ്ണയാക്കി തരും അങ്ങനെ വേണോ അതോ നിങ്ങൾ ഇങ്ങനെ വെട്ടിയിട്ട് കൊപ്പ്ര ആക്കിയിട്ട് ഉണക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ അങ്ങനെ ആട്ടിത്തരും അങ്ങനെ ആട്ടിത്തരും നിങ്ങൾ തേങ്ങ കൊണ്ടുവന്ന് ആട്ടി തരുമ്പോൾ പിന്നെ ഒരു കിലോക്ക് മുപ്പത് ഉറുപ്പ്യ ആണ് ചാർജ്ജ് കൊപ്രാ കൊണ്ടുവന്നിട്ട് നമ്മൾ ആട്ടിത്തരുകയാണെങ്കിൽ ഒരു കിലോക്ക് പതിനഞ്ച് ഉറുപ്പ്യ ഉണ്ട് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ അത് എങ്ങനെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ആ ഇപ്പോൾ ആ

കേട് വരാതെ നിൽക്കാൻ അങ്ങനെ മായം ചേർക്കുകയൊന്നും ഇല്ല അങ്ങനെ കേടുവരികയൊന്നും ഇല്ല നനല്ല്ലവണ്ണം ഉണങ്ങിയ കൊപ്രയാണ് വെച്ചെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനെ അത്ര പെട്ടന്ന് കേട് വരികയൊന്നും ഇല്ല ആട്ടിയിട്ട് നിങ്ങൾ കൊണ്ടുപോയി എത്രയുണ്ടെങ്കിലും കൊണ്ടുപോയി കുറച്ച് ഉപ്പ് കല്ലിട്ട് വെച്ചാൽ മതി വെളിച്ചെണ്ണ കേടുവരികയൊന്നും ഇല്ല നമ്മൾ ഇവിടെ നിന്ന് മായം ചേർക്കുകയോ ഒന്നും ചെയ്യില്ല

ഇല്ലാ അത് കൊണ്ടുവന്നാൽ പിന്നെ മുപ്പത് കിലോ ആയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തേങ്ങയാണെങ്കിൽ ഒരു മൂന്നുനാല് ദിവസം വേണ്ടി വരും കൊപ്ര നിങ്ങൾ പിന്നെ വെട്ടിയുണക്കിയ കൊപ്ര കൊണ്ടുതരുകയാണെങ്കിൽ അപ്പം തന്നെ ആട്ടി തരും വെളിച്ചെണ്ണ കൊണ്ട് പോകാം അപ്പോൾ എങ്ങനെയാണ് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചിട്ട് ചെയ്തോളിൻ കൊണ്ടുവന്നാൽ മതി ഉം കട രാവിലെ എട്ടുമണിക്ക് തുറക്കും വൈകുന്നേരം ആറുമണി വരെ ഉണ്ടാവും ആ ആയിക്കോട്ടെ ഓക്കെ എന്നാൽ ശരി